ഞാൻ മലയാള ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ പറ്റില്ല ചെയ്യാൻ പറ്റത്തില്ല കാരണം മലയാളം കേരളത്തിൽ മാത്രം മലയാളികളിൽ മാത്രം ഇത് മലയാളികൾ മാത്രം സംസാരിക്കുന്ന കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രമല്ല മലയാളികൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് മലയാളം അപ്പോൾ ഹിന്ദി എന്നു പറഞ്ഞാൽ കേരളം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ഹിന്ദിയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നു ഹിന്ദിയാണവരുടെ ഔദ്യോഗിക ഭാഷ അപ്പോൾ ഇന്ന് ഹിന്ദിയുമായിട്ട് മലയാളം താരതമ്യം ഒരു താരതമ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഹിന്ദി ഹിന്ദി മലയാളം അക്ഷരങ്ങൾ ഒത്തിരിയേറെ അക്ഷരങ്ങളും പുള്ളികളും വള്ളികളും ഒക്കെയായിട്ട് മലയാളം അക്ഷരങ്ങൾ പഠിക്കാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് നാല് ഭാഷകളിലേറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷ ജർമ്മൻ പോലെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് മലയാളം മലയാളത്തിലൊത്തിരിയേറെ അക്ഷരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് ഹിന്ദിക്ക് വളരെ കുറച്ചക്ഷരങ്ങളുള്ളതു കൊണ്ട് പഠിക്കാനും അങ്ങനെ ഒത്തിരി എളുപ്പമാണ് ഹിന്ദി പഠിക്കാനായിട്ട് അപ്പം ഹിന്ദി ഹിന്ദി പഠിക്കാൻ എന്നാ എളുപ്പമാണ് ഹിന്ദി പഠിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ മറ്റുള്ള ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഓ എന്തൊക്കെ ചെല്ലുമ്പോൾ ഹിന്ദി സംസാരിക്കുന്നവരായതു കൊണ്ട് നമുക്ക് നല്ല രീതിയിലവരുമായിട്ട് ഭാഷ സമ്പർക്കത്തിലാകാനായിട്ടും നന്നായി നല്ല രീതി സംസാരിക്കാനൊക്കെയായിട്ട് ഹിന്ദി പഠിക്കുകയാണെങ്കിലത് പറ്റും ഹിന്ദി പഠിക്കാൻ ഒത്തിരിയേറെ എളുപ്പ മാണ് ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളേക്കാൾ കൂടുതൽ ഹിന്ദിക്കാരുള്ളത് കൊണ്ട് ഹിന്ദി പഠിക്കുന്നതാണ് ഒത്തിരിയേറെ ഇനി ഇന്ന് എളുപ്പം നമുക്ക് ഹിന്ദി പഠിക്കാനൊത്തിരി എളുപ്പമാണ് ഹിന്ദി സംസാരിക്കാനും എളുപ്പമാണ് അതു കൊണ്ട് ഹിന്ദി മായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് മലയാള ഭാഷയെ പറ്റത്തില്ല കാരണം മലയാളം സംസാരിക്കുന്നത് സംസാരിക്കുന്നവരിപ്പം മറ്റുള്ളവർ കേരളത്തിൽ വരെ വന്നു വരുമ്പോൾ സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പം മലയാളം പഠിക്കുന്നുള്ളതല്ലാതെ മലയാളം പഠിക്കാനായിട്ട് ആര് സ്വന്തം മലയാളം കേരളക്കരയിൽ വരുമ്പം സംസാരിക്കാനായിട്ട് മലയാളം പഠിക്കുന്നു അതല്ലാതെ മലയാളം കൊണ്ട് മറ്റുള്ള ഒരു മറ്റുള്ളൊരു ഇതു ഇല്ല അപ്പം ഹിന്ദി പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എവിടെ ചെന്നാലും നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാനായിട്ട് ഹിന്ദി പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട് അത് ഒത്തിരിയേറെ ഉപകാരമാണ് ഹിന്ദി പഠിക്കുന്നത് മലയാളത്തേക്കാളൊത്തിരിയേറെ സംസാരിക്കാനും എഴുതാനും അതു കൈ കാര്യം ചെയ്യാനും ഒക്കെയായിട്ട് ഹിന്ദി ഒത്തിരിയേറെ എളുപ്പമാണ് അതു കൊണ്ട് ഹിന്ദി പഠിക്കുന്ന എറ്റവും നല്ലത് മലയാളം പഠിക്കുന്നതിനേക്കാളൊത്തിരിയേറെ ഒത്തിരിയേറെ ഇന്ന് എളുപ്പമാണ് പിന്നാ ഹിന്ദി പഠിക്കുന്നത് അതു കൊണ്ട് ഹിന്ദി പഠിക്കുക